ആരായിരുന്നു

ആ എന്തൊക്കെ ആയിരുന്നു ഇപ്പോൾ കൊടുക്കുന്നത് ഈ ഡിസ്കൗണ്ട് ഇട്ട് കൊടുക്കുന്ന ബുക്കുകൾ ഒക്കെ അപ്പോൾ ക്വാളിറ്റി ഉള്ളതാണോ ആഹാ അപ്പോൾ ആ ബാഗ് കുട അങ്ങനെ ഉള്ളതൊക്കെ ഏതിൻ്റെ ഓഫറ് ഇപ്പോൾ കൊടുക്കുന്ന ഏത് ബാഗ് ഏത് കമ്പനിയുടെ ബാഗും കുടയൊക്കെയാണ് ഇപ്പോൾ കൊടുക്കുന്നത് ആ നേരത്തൊക്കെ ഈ ബാഗ് മേടിക്കുമ്പോൾ കുട ഓഫറിൽ കിട്ടുന്ന ഒരു ഇത് ഉണ്ടായിരുന്നല്ലോ അതൊക്കെ ഇപ്പോൾ ഉണ്ടോ ഇപ്പോൾ നിലവിൽ സ്കൂൾ സ്കൂൾ തുറക്കുന്നത് പ്രമാണിച്ച് ഈ ബാഗ് കുട അങ്ങനെ ഉള്ള ഐറ്റം മാത്രമേ നിങ്ങൾ ഓഫറിൽ കൊടുക്കുന്നുള്ളോ അതോ മറ്റെന്തെങ്കിലും ഇപ്പോൾ നിലവിൽ ഓഫറിൽ കൊടുക്കുന്നുണ്ടോ ഈ ടിഫിൻ ബോക്സ് അങ്ങനെ വാട്ടർ ബോട്ടില് അത് എല്ലാം ഇല്ലേ അപ്പോൾ അതിന് എന്നാ റേറ്റാണ് വരുന്നത് ആണല്ലേ പിന്നെ മറ്റെന്തെങ്കിലും ഇപ്പം നിലവിൽ സ്കൂളിലും അല്ലാതെ ഓഫറിൽ കൊടുക്കുന്ന വല്ല ഗിഫ്റ്റ് ഐറ്റംസോ അങ്ങനെ എന്തൊക്കെയാണ് ഉള്ളത് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഉള്ളത് എന്തൊക്കെ ആണ് ഉള്ളത് അപ്പോൾ ഈ ഗിഫ്റ്റ് ഐറ്റംസിലെ നമ്മൾ ഇപ്പോൾ ഒരു ഒരു ഹൗസ്വാമിംഗ് വച്ചു അപ്പോൾ അതിനുള്ള പ്രൊഡക്റ്റ് സാധനങ്ങൾ ഒക്കെ ഉണ്ടോ പാത്രങ്ങൾ സ്റ്റീലിൻ്റെ അങ്ങനെ ഉള്ള പാത്രങ്ങൾ കമ്പനി സാധനങ്ങൾ ഒക്കെ ഉണ്ടോ ഏത് കമ്പനിയുടെ ഐറ്റം ആണ് വരുന്നത് ആ എക്സ്ചേഞ്ച് ഓഫർ ഉണ്ടോ

അപ്പോൾ ഈ ഗിഫ്റ്റ് ഐറ്റംസിനകത്ത് നമ്മൾ ഈ ഫ്ലവർ വേസ് അങ്ങനെ ഉള്ള ഈ ക്ലോക്കുകൾ അങ്ങനെ ഒക്കെ വരും അതിനൊക്കെ എന്നാൽ റേറ്റ് വരും അപ്പോൾ പിന്നെ വേറെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ നമ്മൾ ഈ ഓട്ട് പാത്രം ഉണ്ടല്ലോ കിണ്ടി വിളക്ക് അങ്ങനെ ഉള്ള ഇതിനകത്ത് ഓട്ട് പാത്ര ഐറ്റങ്ങൾ ഉണ്ടോ ആ വിഷു ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ ഈ ഉരുളി പോലുള്ള ഐറ്റം ഒക്കെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ചോദിച്ചത് ആ നമ്മൾ അപ്പം എന്തേരം വലിപ്പം വരുന്നത് ആണ് ചെറിയ ഉരുളി ആണോ അതോ നല്ല വലിയ ഉരുളി ആണോ കൊണ്ടുവരുന്നത് പറഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ഒരു ഉരുളിയും വേണം അത് പോലെ ഞാൻ അവിടെ വന്ന് ഷോപ്പിൽ വന്ന് ഞാൻ കുട്ടികൾക്ക് വേണ്ടി ഉള്ള പുസ്തകം ടെക്സ്റ്റും കാര്യങ്ങളും എല്ലാം ഞാൻ വന്ന് വാങ്ങിക്കോളാം ആ എന്നാൽ നേരിട്ട് ഞാൻ നേരത്തെ ഓർഡറ് തന്നേക്കാം തന്ന് ബുക്കിൻ്റെ ഒക്കെ എത്ര ആണെന്ന് ചോദിച്ചിട്ട് സ്കൂളിൽ നിന്ന് ഉള്ള ഇത് കിട്ടിയിട്ട് എത്രയാണെന്ന് വച്ചാൽ ഞാൻ പറഞ്ഞേക്കാം എന്നിട്ട് എങ്ങനെ ആണ് ഹോം ഡെലിവറി ചെയ്യുകയാണെങ്കിൽ അത് അന്നേരം ഞാൻ വിളിച്ചേക്കാം